ഇന്നത്തെക്കാലത്തെ വിവാഹച്ചടങ്ങുകളിൽ വധുവിന് കൊടുക്കുന്നതെന്ന് വെച്ചാല് വലിയ പാരിതോഷികങ്ങളാണ് അത് മൊബൈൽ ഫോണുകളാണ് വാഹനങ്ങള് കൊടുക്കാറുണ്ട് മറ്റു പല കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊടുക്കാറുണ്ട് കൂടുതലും നമ്മുടെ നാട്ടില് കാണപ്പെടുന്നതൊക്കെയാണെങ്കിൽ മൊബൈലുകൾ മൊബൈൽ ഫോണ് ഗിഫ്റ്റായി കൊടുക്കുകയും അതല്ലെങ്കിൽ ചെറിയൊരു നെക്ലേസ് മാല ഗോൾഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയായിട്ടാണ് ആളുകള് കൊടുക്കാറുള്ളത് കാണുന്നത് അതിനുപരി വലിയ വലിയ ചടങ്ങുകളിലൊക്കെയാണ് ഈ ആഡംബരക്കാറുകളും ലക്ഷ്യുറി വണ്ടികളൊക്കെ പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്തുപോകുന്നത് സാധാരണ ഒരു കല്യാണച്ചടങ്ങില് വധുവിന് കൊടുക്കുകയാണെങ്കിൽ അത് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊരു ഓർമ്മിച്ചിരിക്കാന് എന്നും ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെയായിരിക്കും അത് മിട്ടായി അല്ലെങ്കിൽ കേക്ക് അതല്ലെങ്കിൽ വേറെയെന്തെങ്കിലുമൊക്കെ ചെരിപ്പ് സാരി അങ്ങനെയെന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതൊക്കെയാണ് സാധാരണ ഒരു മാരേജ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്